ഇപ്പോൾ നമ്മുടെ രാജ്യത്താണെങ്കിലും നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ യുവാക്കളുടെ തൊഴിലില്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പഠിച്ച് വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് പോലും തൊഴിലില്ലാത്ത കൃത്യമായി തൊഴിൽ ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ അത് കാരണം ഈ ഇത് തൊഴിലില്ലായ്മ കാരണം ഒരുപാട് തരത്തിലുള്ള കുടിയേറ്റങ്ങൾ ചെറിയ ജോലികളില് പോലും അതായത് തങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഇണങ്ങാത്ത ജോലികളിലേക്ക് പോലും ആളുകൾ അങ്ങനെ പോലും പോവാനായിട്ട് അത് പോലും ഈ രാജ്യത്ത് നിൽക്കാതെ അങ്ങനെയുള്ള ജോലികളാണെങ്കിലും കുടിയേറെപ്പോയി അത് ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറാവുന്നുണ്ട് തീർച്ചയായും സർക്കാരിൻ്റെക്ക് ഇടപെടലുകൾ ഒരുപാട് ഇടത്തോട്ട് ചെല്ലേണ്ടതുണ്ട് നമ്മുടെയൊക്കെ നാട്ടില് ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മള് കൃത്യമായിട്ട് അതിനൊരു വില കൽപ്പികാറില്ല അപ്പോൾ ഈ ഒരൂ കാര്യമൊക്കെ യുവാക്കൾ ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി അതുകൊണ്ടവര് ഇഷ്ടപ്പെടുന്നെങ്കിൽ പോലും അങ്ങന അത്തരം ജോലികളിലേർപ്പെടുന്നതിൽ നിന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കുറേശെ ഒക്കെ ചെയ്യാനാഗ്രഹമുള്ള ഒരുപാട് ആളുകള് പോലും അതിലോട്ട് തിരിയാത്തത് അതിനെ സമൂഹം അതിൻറ്റെതായൊരു ബഹുമാനം വളരേ ബഹുമാനം അർഹിക്കുന്നൊരു കാര്യമാണ് ഈ കൃഷീലേക്കേർപ്പെടുക എന്നുള്ളത് പക്ഷേ യുവാക്കൾക്കതിനോട് തിരിക്കുമബോള് അതിനോ അതിലർഹിക്കുന്നൊരു ബഹുമാനം കൊടുക്കാത്തതില് സമൂഹം അതിനേ ഒരു മുഖം തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നുണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അത്കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ സർക്കാര് കുറെ കൂടെ അവബോധം സൃഷ്ടിക്കുകയും പിന്നെ അത്പോലെ നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും കൃത്യമായ തൊഴില്കള് സൃഷ്ടിക്കുകയും ചെയ്യ്ക എന്നതൊക്കെ വളരെ അത്യാവശ്യായിട്ടുള്ള കാര്യവാണ്